സ്ത്രീകള് ഇന്ന് നമ്മുടെ സമൂഹത്തില് വളരെയധികം പ്രശ്നങ്ങള് അല്ലെങ്കിൽ വെല്ലുവിളികള് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് രാത്രി സമയങ്ങളവർക്ക് ഒറ്റക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്

അതിക്രമിക്കാനുള്ള ലക്ഷ്യത്തോടെ ഒരുപാടാളുകള് തെരുവിൽ ഇറങ്ങി നടക്കുന്നുണ്ട് പീഡിപ്പിക്കാനുള്ള ശ്രമത്തില് ലൈംഗികമായിട്ട് അതിക്രമം നടത്തുക അതാണ് അവരുടെ പ്രധാന ലക്ഷ്യം അപ്പോൾ ഇതുള്ളതുകൊണ്ടുതന്നെ സ്ത്രീകൾക്ക് ഒരു ആറുമണി ഏഴുമണി സമയം കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷമാണ് ഇന്ന് ഇന്ത്യയില് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തില് അത്ര വലിയ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽക്കൂടിയും കേരളത്തിന് പുറത്തു മറ്റു സംസ്ഥാനങ്ങളില് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങള് ഉത്തർപ്രദേശ് ബീഹാറ് എന്നി സംസ്ഥാനങ്ങളില് സ്ത്രീകൾക്ക് പകലുപോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നമ്മള് മണിപ്പൂരിലായിക്കോട്ടെ ത്രിപുരയിലായിക്കോട്ടെ അവിടെയൊക്കെ നമ്മള് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ട് യുവതികളെ നഗ്നയായിട്ട് നടത്തിക്കൊണ്ട് ആ ഗ്രാമത്തിലെ പുരുഷന്മാരെല്ലാവരും ആ സ്ത്രീയെ നഗ്നയായിട്ട് ഗ്രാമവീഥിയിലൂടെ നടത്തുന്നൊരു സ്ഥിതി നമ്മളെല്ലാവരും കണ്ടത് തന്നെയാണ് അത്തരത്തിലാണ് ഇന്ത്യയിലെ സ്ത്രീകളിവിടെ ജീവിച്ചു പോകുന്നത് അവർക്ക് വേറെ വഴിയില്ലാത്ത ഒരേ ഒരു കാരണം കൊണ്ടാണവര് ഇവിടെങ്ങനെ പിടിച്ചു നിക്കുന്നത് നമ്മള് സ്വാതന്ത്രത്തിനു മുമ്പായിക്കോട്ടെ ഇപ്പോഴായിക്കോട്ടെ സ്ത്രീകള് വെല്ലുവിളികളിലൊരു ഒരു ഒരു കുറവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം അവർക്ക് വിദ്യാഭ്യാസം ഇന്ത്യയില് ഇന്ത്യയിലെ വിദ്യഭ്യാസത്തിൻ്റെ ശതമാനം നോക്കിയാൽ മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം കേരളമാണ് സ്ത്രീ സാക്ഷരത കൂടുതലുള്ള സംസ്ഥാനവും കേരളമാണ് എന്നിരുന്നാൽക്കൂടി കേരളത്തിലും ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് ഇതേ രീതിയിലുള്ള വെല്ലുവിളികൾ ഉണ്ട് എന്ന് പറയുമ്പോൾ സാക്ഷരത നേടി എന്നതില് എന്തർത്ഥമാണുള്ളത് അതാണെനിക്കിവടെ ചോദിക്കുവാനുള്ളത് സ്ത്രീകൾക്കിങ്ങനെ സാക്ഷരത പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സാക്ഷരതയുണ്ട് തൊണ്ണൂറു ശതമാനം സാക്ഷരതയാണ് എന്ന് പറയുമ്പോഴും സ്ത്രീകൾക്ക് രാത്രി പുറത്തിറങ്ങി നടക്കാൻപറ്റാത്ത ഒരവസ്ഥ എന്ന് പറയുമ്പോൾ സാക്ഷരതകൊണ്ട് നമുക്കൊരു വിലയും കിട്ടാത്തൊരു സ്ഥിതി വിശേഷമാണ് ഈ വ്യവസ്ഥിതി സമൂഹത്തിൻ്റെയീ ഇത്തരത്തിലുള്ള ഈ നിലപാട് നമ്മൾ മാറ്റേണ്ടതാണ് ജോലി സ്ഥലത്തിലായിക്കോട്ടെ പുറത്തെവിടെ ആയിക്കോട്ടെ അവർക്ക് സുരക്ഷിതത്വത്തിൻ്റെ ഒരു പ്രശ്നം ഗുരുതരായിട്ടിപ്പോൾ നടന്നുകൊണ്ടിരിക്കാണ് ഒരു ജോലിക്ക് പോയാൽ ആ ജോലി സ്ഥലത്തെ ജോലിക്കകത്തുനിന്നു ഒക്കെ മനസമാധാനത്തോടെ ജോലി പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അടുത്തുള്ള മേലുദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുന്നായാലും സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നായാലും അവരുടെ ഉള്ളിൽ നിന്നുള്ള കുത്തു വാക്കുകളും അതെല്ലാം കേട്ട് സഹിച്ചിട്ടാണ് അവരവിടെ ജോലി ചെയ്യുന്നത് ഒരിക്കലും അനുവദിച്ചു കൂടാൻ പറ്റാത്തതാണ് ഇവിടെത്തെ നീതി ന്യായ വ്യവസ്ഥയായിക്കോട്ടെ ഭരണ സംവിധാനങ്ങളായിക്കോട്ടെ വിഭാങ്ങളായിക്കോട്ടെ ഇവരുടെ ഭാഗത്തു നിന്നും ഇത്രയും കാലമായിട്ടും ഒരു നല്ല രീതിലുള്ള ഒരു റെസ്പോൺസ് സ്ത്രീകൾക്ക് വേണ്ടി കിട്ടിട്ടില്ല സ്ത്രീകൾക്ക് വേണ്ടിത്തന്നെ പല നിയമങ്ങളും ഈ ഇന്ത്യ രാജ്യത്തുണ്ടെങ്കിൽക്കൂടിയും ഇതിൽനിന്നൊന്നും ഒരു പരിരക്ഷ അവർക്കിതുവരെ കിട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം പല സ്ത്രീകളും അവർക്കിങ്ങനെ നേരിടേണ്ടിവരുന്ന വിഷമങ്ങൾ നീതിന്യായ വിഭാഗക്കാരോടും പൊതുജനങ്ങളോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽക്കൂടി അങ്ങനെ പറയുന്നവരെ അകത്തി നിൽക്കുന്നൊരു സമീപനമാണിപ്പോൾ ഈ സമൂഹത്തില് കണ്ടുവരുന്നത് ഇതിൽനിന്നൊക്കെ ഒരു മാറ്റം വേണം നമ്മള് ഇരുപത്തൊന്നാം നൂറ്റാണ്ടില് ജീവിക്കുന്ന ആളുകളല്ലേ അവർക്കും ജീവിക്കണ്ടേ അവർക്കും മനസമാധാനത്തോടെ പുറത്തിറങ്ങി നടക്കണ്ടേ അതേ സ്വാതന്ത്ര്യം നമുക്കുള്ള അതേ സ്വാതന്ത്രം തന്നെയല്ലേ സ്ത്രീകൾക്കുമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് മഹാന്മാരായ ഒരുപാടുപേര് അവരുടെ പ്രയത്നം കൊണ്ട് നേടിയ സ്വാതന്ത്രം ആ സ്ത്രീകൾക്കും കൂടി അവകാശപ്പെട്ടതല്ലേ അവർക്കുമാത്രമായിട്ട് മാറ്റിനിർത്താൻ പറ്റുന്നൊരിത് ഇല്ല ആയിരത്തിത്തൊള്ളായിരത്തി നാപ്പത്തൊമ്പത് നവംമ്പർ ഇരുപത്താറിനു ഡോക്ടർ ബിആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയില് സ്ത്രീകൾക്കും വളരെയധികം നല്ലൊരു പങ്കുണ്ട്

സ്ത്രീകൾനെ മാറ്റി നിർത്താനുള്ളൊരു സ്ഥിതി വിശേഷം ഇന്ന് ഇന്ത്യ രാജ്യത്തില്ല അവർക്കും തുല്യ അവസരങ്ങളാണ് ആർട്ടിക്കിൾ പതിനാറില് പറയിണ്ട് അവസര സമത്വം എന്നുള്ളത് ഭരണഘടനേല് അപ്പോൾ ഈ ആർട്ടിക്കിൾ പതിനാറ് അവസര സമത്വം എന്നുള്ളത് ഭരണഘടനയിൽ മാത്രം ഒതുങ്ങിപ്പോകേണ്ടതല്ല എല്ലാവർക്കും അതൊരുപോലെ കിട്ടേണ്ടതാണ് അതാണെനിക്ക് ഇപ്പോൾ ഇവിടെ പറയാനുള്ളത് സ്ത്രീകളില് ഒരു തരത്തിലും മാറ്റി നിർത്ത ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളില് അൻപത് ശതമാനം സ്ത്രീകൾക്ക് സംവരണം ഉണ്ടെന്ന് പറയണത് നല്ല കാര്യാണ് പക്ഷെ ഇതേ അമ്പത് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതൽ സംവരണം എല്ലാ ജോലിയിലും എല്ലാ വിഭാഗങ്ങളിലും എല്ലാ തരത്തിലും ഇതേ സംവരണം ആവശ്യമാണ് സ്ത്രീയിനേം പുരുഷനേം ഒരുതരത്തിലും വേറിട്ടു കാണാൻ കാണാത്ത രീതിയിലായിരിക്കണം ഇനി മുന്നോട്ടുള്ള നമ്മുടെ കാലഘട്ടത്തില് പോകേണ്ടത് സ്ത്രീകളോട് പറയാൻ ചില വിഭാഗം സ്ത്രീകളാണെങ്കിൽക്കൂടി സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനം വരുമ്പോൾ ആ സ്ത്രീകൾ പോലും എതിർക്കാത്ത ഒരു സ്ഥിതി വിശേഷം ഉണ്ട് ഇപ്പോൾ തട്ടമിട്ടിട്ട് ഞാൻ ഒരു മതത്തിനേയും വൃണപ്പെടുത്താൻ വേണ്ടി പറയല്ല തട്ടമിട്ടിട്ട് പുറത്തു പോകാൻ പറ്റില്ല എന്നുള്ളത് എല്ലാ സ്ത്രീകൾക്കും സ്ത്രീകളും അംഗീകരിച്ചൊരു കാര്യമല്ല ചില മുസ്ലിം സ്ത്രീകൾക്ക് തട്ടമിടാതെ പുറത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ടാകും പക്ഷേ അതേ സമുദായത്തിൽപ്പെട്ട സ്ത്രീകള് പറയും തട്ടമിടാതെ പുറത്ത് പോയാൽ അത് നമ്മുടെ മതത്തെ ത്യജിക്കുന്നപോലെയാണ് അതില്ലാതാക്കുന്നപോലെയാണെള്ളൊരിത് അവരുടെ ജാതിയിൽപ്പെട്ട സ്ത്രീകളുടെ ഉള്ളിൽത്തന്നെയുള്ളൊരു കാര്യാണ് അത് മാറേണ്ടതാണ് ആർത്തവം വരുന്നൊരു സ്ത്രീ അമ്പലത്തിൽ പോകാൻ പാടില്ല പള്ളിയിൽ പോകാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ളതും അതും നമ്മളീ ജീവിക്കുന്ന ഇന്ത്യാ രാജ്യത്തുതന്നെള്ളതാണ് ആർത്തവം എന്നുള്ളത് നമ്മുടെ ശാരീരികമായിട്ടുള്ളൊരു പ്രക്രിയ മാത്രാണ് അതിന് അശുദ്ധി എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തേണ്ട ഒന്നല്ല അത് സ്ത്രീകൾതന്നെ ഇപ്പോൾ അത് മനസിലാക്കാതെ മാറ്റി നിർത്തുന്നൊരു സ്ഥിതി വിശേഷമാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇടയില് കണ്ടു പോവുന്നത് സ്ത്രീകൾടെ ഇടെത്തന്നെ ഒരു മാറ്റം അനിവാര്യമാണ് അപ്പോൾ ഇതെല്ലം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിവരുന്ന തലമുറയും സ്ത്രീകൾക്ക് വേണ്ടിട്ട് നല്ലരീതില് അവർക്ക് വേണ്ടി സംസാരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഇനി വരുന്ന തലമുറ സ്ത്രീ പുരുഷ വേർതിരിവില്ലാതെ എല്ലാത്തിനും തുല്യ പങ്കാളിത്തത്തോടെ എല്ലാ കാര്യത്തിനും മുന്നിട്ടിറങ്ങണം എന്നാണ് പറയാനുള്ളത്